എനിക്ക് സ്ക്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റോം ഇഷ്ട്ടമുള്ള വിഷയേതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കണക്കാണ് എനിക്ക് കണക്കിനാണ് ഏറ്റോം കൂടുതൽ മാർക്കും കിട്ടാറ് പണ്ടുതൊട്ടേ ഭയങ്കരിഷ്ട്ടം അതായത് അതായത് കൂട്ടിക്കിട്ടുമ്പോൾ ഇങ്ങനെ നമ്പറ് അതായത് നമുക്കിപ്പോൾ ആദ്യം കൂട്ടൽ കുറക്കൽ ഗുണിക്കൽ ഹരിക്കൽ അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ ചെയ്ത് പിന്നെ അതായത് അതിൻ്റെ ഉത്തരമൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ മിസ്സിനോടൊക്കെ പറയുമ്പോൾ മനസ്സിനൊരു സന്തോഷമായിരിക്കും അപ്പോൾ അതോണ്ടെനിക്ക് കണക്കാണ് കൂടുതലും ഇഷ്ട്ടം കണക്കിനെനിക്കിപ്പോൾ പത്താം ക്ലാസ്സിലാണെങ്കിൽ എനിക്ക് എ പ്ലസ് ആയിരുന്നു പിന്നെ എനിക്ക് കണക്ക് ഇഷ്ടമുണ്ടായതോണ്ടുതന്നെ ഞാൻ ഡിഗ്രി ബികോമാണ് എടുത്തത് പിന്നെ പി ജി എംകോമാണ് എടുത്തത് അപ്പം അതൊക്കെ എനിക്ക് കണക്കിനോടൊരു താല്പര്യോം അതായത് കൂടുതലൊരു താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ അതൊക്കെ എടുത്തത് അതായത് കണക്ക് ടീച്ചർക്ക് എന്നെയും ഭയങ്കര കാര്യമായിരുന്നു അപ്പം ടീച്ചർ ആദ്യം ഹോം വർക്കൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഞാനാ ആദ്യം ചെയ്യാ അപ്പോൾ ടീച്ചർ ആദ്യം എൻ്റെ ബുക്കാണ് നോക്കുക ഞാൻ ഹോം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ശരിയാണൊന്നാക്കെ പറഞ്ഞിട്ട് നോക്കും എന്നിട്ട് തോളത്ത് തട്ടും അടിപൊളിയാ നല്ലോണം ഇതുപോലെതന്നെ പഠിക്കണംന്നൊക്കെ പറയും അപ്പങ്ങനെ ആരോടെ ആരെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടേൽ പറഞ്ഞുകൊടുക്കാനൊക്കെ പറയും